ആ ഹലോ സാർ പറയൂ ആഹ് ഓക്കേ സാർ കേരളത്തിൽ ആദ്യമായിട്ട് ആണോ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സീ ഫുഡ് മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ സീ ഫുഡുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്ന സാധനം അത് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോ സീ ഫുഡ്സിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചത് ആണ് അതുപോലെ പിന്നെ ഇവിടെ ചെമ്മീൻ കറികൾ ചെമ്മീൻ വറുത്തരച്ചത് ചെമ്മീൻ ഫ്രൈ കൂന്തൽ വറ്റിച്ചത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്ന സാധനം സാർ അത് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ആ ഓക്കേ സാർ ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം സാർ അത് കേട്ടിട്ട് ഇങ്ങനെ ഇത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ കരിമീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കരിമീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നത് അത് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് കനലിൽ ഇട്ട് ചുട്ട് എടുക്കുന്നതാണ് അതുപോലെ ചെമ്മീൻ വറുത്തരച്ചത് എന്നു പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് വറുത്തരച്ചത് ചെമ്മീൻ കറി അതുപോലെത്തന്നെ ചെമ്മീൻ വറുത്തതും വളരെ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പിന്നെ സാർക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ആ ഓക്കേ സാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കരിമീൻ പൊള്ളിച്ചത് തന്നെ ട്രൈ ചെയ്തു നോക്കാം കരിമീൻ പൊള്ളിച്ചതിൽ തന്നെ നമ്മൾ ഇപ്പോൾ പല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒന്ന് നമ്മൾ തനത് രീതിയിൽ തന്നെ സാധാരണ ട്രെഡിഷണലായിട്ട് ഉണ്ടാക്കുന്നത് പോലെ വാഴയിലയിൽ പൊതിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് അത് അല്ലാതെ ഇപ്പോൾ നമ്മൾ തന്നെ തേങ്ങയിട്ടു വറുക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ വേറെ വേറെ ഒരു രീതിയാണ് കരിമീൻ കറി ആയിട്ട് ചെയ്യുന്നുണ്ട് അതായത് കരിമീൻ പൊള്ളിച്ചത് എടുത്തിട്ട് ഉണ്ടാക്കുന്ന കറി അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ സാർക്ക് ഇതിൽ ഏതെങ്കിലും ട്രൈ ചെയ്യണോ അതോ ട്രഡീഷണലി ഉള്ള രീതിയിൽ അത് തന്നെ നോക്കിയാൽ മതിയോ ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ കൂടെ നമ്മൾ മട്ട റൈസും മട്ട അരി ചോറ് അങ്ങനെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മട്ടയരിച്ചോറും മോരു കറിയും ഒക്കെയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത് ചെയ്യുന്നോ അതോ വേറെ എന്തെങ്കിലും രീതി പ്രിഫെർ ചെയ്യുന്നുണ്ടോ ഓക്കേ അങ്ങനെയാണെങ്കിൽ മട്ട അരി ചോറും കുറച്ച് സൈഡ് ഡിഷസും ഉണ്ടാവും അതുപോലെ മോരുകറി മെയിൻ ഡിഷ് ആയിട്ടുണ്ടാവും ഈ കരിമീൻ പൊള്ളിച്ചതും പിന്നെ നമ്മളൊരു പായസവും ഇത് എല്ലാം കൂടി ഒരു കോമ്പോ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് എടുക്കുകയല്ലേ ഓക്കേ സർ അങ്ങനെയാണെങ്കിൽ അത് തന്നെ നമുക്ക് ചെയ്യാം ശരി സർ താങ്ക് യൂ